ഹലോ ഷെഫീക്കേ നീയെവിടെ ഞാൻ രണ്ടു ദിവസമായി നിന്നെ വിളിക്കുന്നു ഇന്നലെയും കുറേ വിളിച്ചു കിട്ടുന്നു തന്നെയില്ല എന്താ ലീവൊക്കെ കഴിഞ്ഞു പോകാനായോ ഏടാ ഞാനേ എന്താ എനിക്കവിടൊരു ഓഫർ വന്നിട്ടുണ്ട് ജോബിൻ്റെ ആ ഇപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പനിയിലാണ് അപ്പം എത്രയും പെട്ടെന്ന് അവിടെ എത്തിയാലേ ഇപ്പം അതിൻ്റെ ഒരു ഇൻറർവ്യൂ ഉണ്ട് അത് അറ്റൻ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം നമ്മളുടെ അവിടുന്ന് ഏറ്റവും അടുത്ത് പോകുന്ന സൗദിയിലേക്കുള്ള ഫ്ലൈറ്റ് ഏതാണെന്നുണ്ടെങ്കിൽ നീ ഒന്ന് നോക്കിയിട്ട് പറയുമോ എത്രയും പെട്ടെന്ന് അവിടെ എത്തിയാലേ ഇപ്പം അത് അറ്റൻ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ വെറുതൊരു ഓഫർ മിസ്സാക്കണ്ടായെന്നു വിചാരിച്ചിട്ടാണ് നീയൊന്നു നോക്കിയിട്ട് പറയൂ കേട്ടോ ഇപ്പം ഏതായാലും സീസണൊന്നും അല്ലാത്തതു കൊണ്ട് വലിയ തിരക്കുണ്ടാകില്ല തോന്നുന്നു അല്ലേ ഏതായാലും എത്രയും പെട്ടെന്ന് അവിടെ എത്തണം ഈ കണക്ഷൻ ഫ്ലൈറ്റൊന്നുമല്ലാതെ കിട്ടുമൊയെന്നറിയില്ല അല്ലേ ഞാനീ ഫസ്റ്റ് ടൈം ആയതു കൊണ്ട് എനിക്ക് ഇതിനെ പറ്റിയൊരു ഐഡിയയൊന്നും ഇല്ല നീയൊന്നു നോക്കിയിട്ട് പറഞ്ഞു കൊണ്ടാ കേട്ടോ നിൻ്റെ ലീവൊക്കെ കഴിഞ്ഞ് പോകാനായോ ഇനിയേതായാലും നീ അവിടെ എത്തിയാൽ ചിലപ്പോൾ ഞാനുണ്ടാകും അവിടെ ആ ഇത് നല്ലൊരു ഓഫറാണ് അപ്പോൾ പെട്ടെന്നു വരാൻ പറഞ്ഞതേ ഇന്ന് ഞാൻ അവരെങ്ങോട്ടോ പോകുന്നുണ്ട് അപ്പം അതിൻ്റെ മുന്നേ അവിടെ എത്തിയാലെ ഇൻറ്റർവ്യൂ അറ്റൻ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം എത്രയും പെട്ടെന്ന് അവിടെ എത്തുന്ന രീതിയിൽ പോകണം ഏതായാലും നോക്കിയിട്ടെ ഏറ്റവും അടുത്ത ഏതു ഫ്ലൈറ്റാണെന്നുണ്ടെങ്കിൽ അതൊന്ന് പറ കേട്ടോ നോക്കിയിട്ട് എമൗണ്ടും ഒക്കെ എത്ര പറ ഞാൻ പേ ചെയ്തു തരാം എന്നാൽ ശരിയെടാ വേറെ എന്തൊക്കെ ആ ആയിക്കോട്ടെ എന്നാൽ ഓക്കെ താങ്ക് യൂ